ഞാൻ ഔദ്യോദിക ആവശ്യം ആവശ്യത്തിനായി കുറിച്ചിയിൽ നിന്ന് കോട്ടയത്തേയ്ക്ക് സ്ഥലം മാറി അപ്പോഴെനിക്ക് പുതിയ എൻ്റെ കണക്ഷന് കുക്കിംഗ് ഗ്യാസിൻ്റെ കണക്ഷനും അങ്ങോട്ടേക്ക് മാറ്റിത്തരണം ഞാനിപ്പോൾ താമസിക്കുന്നത് സെന്റ് മേരീസ് ഫ്ലാറ്റ് ശാസ്ത്രി റോഡ് എന്ന സ്ഥലത്താണ് എൻ്റെ കുക്കിംഗ് ഗ്യാസിന്റെ നമ്പര് ഫൈവ് സെവൻ ബാർ എയ്റ്റ് നയൻ എന്നാണ് ശ്രേയ ഇന്ത്യൻ ഓയിൽ ഏജൻസിയാണ് ഇതിനുള്ള സഹായം ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു